ആ ഗുഡ് മോർണിംഗ് സാർ സാറിനെ ഒന്നിങ്കിലെ ഞാനാണെങ്കി കാത്തിരിക്കയായിരുന്നു ഒരു കാര്യം ഒന്ന് തെരക്കാനായിട്ട് എന്തോ ചെയ്യാനാ എനിക്കാണെങ്കിലെ സാംസ്കാരിക വിനിമയ പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് എടുക്കണമായിരുന്നു നമുക്ക് വിദേശത്തേക്കാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് സാറേ അന്നേരം പാസ്പോർട്ടിന് അപേക്ഷിക്കണമായിരുന്നു അന്നേരം ഈ പാസ്പോർട്ടിന് എന്തൊക്കെ ചെയ്യേണ്ടി വരും ഇതൊന്നും ഇതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല സാറേ അന്നേരം സാറിനോട് ഞാൻ രണ്ടു മൂന്ന് ദിവസം കൊണ്ടേ ഇങ്ങനെ തെരക്കുന്നുണ്ടായിരുന്നു സാറേ അന്നേരം ഞാനൊരു കോളേജ് വിദ്യാർത്ഥി ആയതുകൊണ്ട് എനിക്കെന്തെങ്കിലും പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോള് പ്രത്യേകിച്ച് വല്ല ഇതും കൊടുക്കണോ അതാ എനിക്ക് മറ്റുള്ളവർ അപേക്ഷിക്കുന്നത് പോലെ തന്നെ മൂവ് ചെയ്താല് മതിയോ ഇതൊക്കെ എനിക്കൊരു ഡൗട്ടുണ്ട് സാറിനാവുമ്പോള് ഇതൊക്കെപ്പറ്റി അറിയാമല്ലോ പിന്നാണെങ്കില് പിന്നെ എൻ്റെ അച്ഛന് പാസ്പോർട്ടുണ്ട് അന്നേരം അമ്മയ്ക്കും ഉണ്ട് അന്നേരം എനിക്കത് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അല്ലെങ്കില് പിന്നെ ഈ കോളേജ് സ്റ്റുഡന്റായതുകൊണ്ട് എൻ്റെ ക്ലാസ്സൊക്കെ പോവുകയും ചെയ്യും എനിക്ക് ഈ കോളേജില്നിന്ന് തന്നെ വിടുന്നതുകൊണ്ട് അതൊരു ഓപ്പർച്യൂണിറ്റി പോലെ എനിക്ക് ഉപകാരപ്പെടുകയല്ലേ സാറേ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഈ പരിപാടിയാവുമ്പോള് എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊരു ഐഡിയ ഇല്ല ആദ്യമായിട്ടായതുകൊണ്ട് പിന്നെ ഈ ഞാനാണെങ്കില് അപേക്ഷ കൊടുക്കാൻ തയ്യാറാണ് അന്നേരം ഇതിനെല്ലാം വേണ്ടി സാർ എനിക്കു വേണ്ടിയൊന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തന്നായിരുന്നെങ്കില് വലിയ ഉപകാരമായിരുന്നു